ആ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുവായിരുന്നു അതായത് എനിക്കിപ്പോൾ വയനാട്ടിലുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ട്രെക്കിങ്ങിന് പറ്റിയത് ആ അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങൾ ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റി ആ ഓ ഉണ്ടല്ലേ അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇപ്പോൾ കാണാൻ പറ്റുക ആ അത്

ആണല്ലേ ആ ഓക്കെ ഈ ചെതലയം വാട്ടർഫാള്സ് അത് അവിടെയാണോ അവിടെത്തന്നെ ആണോ വായനാട്ടിൽ തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെക്കൂടി കാണണമെങ്കിൽ എത്ര ദിവസത്തെ ട്രിപ്പ് ഉണ്ടാവും ഏകദേശം

ട്രാവൽ ഉണ്ട് അല്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ മറ്റന്നാളാണ് വരുന്നത് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് നിങ്ങളുടെ അവിടെ സീറ്റ് ഉണ്ടാവുമോ വണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ നമ്മളൊരു ആ ഞങ്ങളൊരു ഏഴ് പേരുടെ അടുത്തുണ്ടാവും ആ മതി മതി മതി ഞങ്ങൾ നേരെ ഇതിലാണ് വരുന്നത് പ്ലെയിനിലാണ് വരുന്നത് അപ്പം നമ്മൾ കോഴിക്കോട് വന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്യുമോ എങ്ങനെയാണ് പിക്ക് ചെയ്യും അല്ലേ നമുക്ക് ആദ്യം നമ്മൾ ആ ആദ്യം ആദ്യം നിങ്ങൾ ഇപ്പോൾ എവിടേക്കാണ് കൊണ്ടുപോവുക നമ്മളെ ആ ആണല്ലേ ആ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യില്ലേ

ആ ഓക്കെ ഓക്കെ അത് ഞാൻ നാളെ ഡിസ്ക്കസ് ചെയ്തിട്ട് ഞാൻ പറയാം ഓക്കെ എന്നാൽ ഞാൻ വിളിക്കാം ഈ നമ്പറിൽ